ഹലോ ആ അപ്പോൾ ഇങ്ങനെയായിരുന്നു അല്ലേ സെലക്ഷനു വേണ്ടീട്ടല്ലേ വിളിക്കുന്നത് ആ അപ്പോ നിങ്ങളുടെ ഏജ് ഒന്ന് പറയാമോ പതിനേഴോ പതി പതിനഞ്ച് ഓ ഓ ചെറിയ കുട്ടിയാണ് ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊൾ നമുക്ക് നാളെ രാവിലെ നിങ്ങൾ നേരത്തെ എത്തണം ഇവിടെ ഒരു ആറ് മണിക്ക് എത്തണം

ആ നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണോ ഇല്ല അപ്പോൾ ആ എല്ലാം നാളെ നമ്മൾ ടെസ്റ്റ് ചെയ്യും നിങ്ങടെ ഫിറ്റ്നസ് കാണുമ്പൊൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ മാത്രം പറ്റുവെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഒരാവശ്യവുമില്ല ഓക്കെ മടി പിടിച്ച് ഇരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ പറയുന്ന കാര്യം സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ നാളെ രാവിലെ വന്ന് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യുക എന്നിട്ട് അറിയാമല്ലോ നമുക്ക് കോച്ച് എന്നെ അറിയാമല്ലോ എൻ്റെ അടുത്ത് വന്നാൽ മതി ജസ്റ്റ് ഒന്ന് വാമപ്പും ജസ്റ്റ് ഒരു ഗ്രൗണ്ടൊരു പാം ഒരു പത്ത് ഓടണം തിരിച്ചും മറിച്ചും ഒക്കെ ഓടിക്കും ആ ഇനി ഓടിയിട്ട് വാമപ്പൊക്കെ ചെയ്തിട്ട് വരിക ബൂട്ട് മസ്റ്റാണ് തൊളയുള്ള ബൂട്ട് ഒന്നും ഇട്ടിട്ട് വരരുത് ആ സോക്സ് ആ സോക്സ് ബൂട്ട് പ്യാഡ് ആ പിന്നെ ഫസ്റ്റ് ഐയ്ഡ് ബോക്സ് ഇതൊക്കെ കൊണ്ട് വരണം ആ പിന്നേ അത് നിങ്ങളെ സെലക്ട് ചെയ്താൽ ഇ ചിലപ്പോൾ വൈകുന്നേരം വരെ ഉണ്ടാവും പക്ഷേ അത് നമ്മൾ നീ ഇപ്പോൾ ചേർന്നതല്ലേ ഉള്ളൂ പക്ഷെ നിനക്ക് ഉച്ച വരെ ഉണ്ടാവുളളു ഫുഡ്ഡ് ഒന്നും കരുതണ്ട അപ്പൊ നീ വൈകീട്ട് വാ വൈകീട്ട് ആണെങ്കിലോ ആ അപ്പൊ നീ ഒരു നാലര അഞ്ച് മണി ആകുമ്പോൾ ഇവിടെ എത്തിയാൽ ഒരു ഏഴ് മണിക്ക് നിനക്ക് പോകാം ഓക്കെ ഇപ്പം രാവിലെ ആണെങ്കിൽ ഇ കുറച്ച് നേരത്തെ നീ വരേണ്ടിവരും അതിനനുസരിച്ച് നമ്മളിവിടെ കുട്ടികളുടെ സൗകര്യത്തിനല്ല നമ്മളൊരു ഫിക്സ്ഡ് ടൈമാണ് ആ ടൈമിൽ നിങ്ങൾ വരിക വർക്കൗട്ട് ചെയ്യുക അല്ലാത്ത നിങ്ങളുടെ ടൈം നമ്മൾ നോക്കില്ല ഓക്കെ സെലക്ഷനെല്ലാം നിൻ്റെ മിടുക്ക് പോലെയുണ്ടാവും അപ്പോൾ ഓക്കെയല്ലേ ആ നാളെ ആറ് മണിക്ക് ഇപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് നിനക്കത് ഓർമയില്ലേ ആ ഓക്കെ ഓക്കെ ശരി ശരി ആ ആ ആടോ ആടോ നീ ടെൻഷനാവല്ലേ നാളെ രാവിലെ നീ വാ ഞാൻ ശരിയാക്കി തരാം ഓക്കെ ആ ശരി ശരി